കാർഷിക ഉൽപ്പന്ന വിൽപ്പനശാലകളും അതുപോലെ തന്നെ കന്നുകാലി വിതരണശാലകളും അതുപോലെതന്നെ കർഷകരുടെ ചന്തകള് കാർഷികവിനോദസഞ്ചാര പ്രവർത്തനങ്ങള് കാർഷിക ഉടമ്പടി സേവനങ്ങള് ഇതെല്ലാം ഉൾനാടൻ പ്രദേശത്തെ പ്രാദേശിക കാർഷിക വ്യവസായത്തെ പിന്താങ്ങാനായി സ്ഥാപിച്ചിട്ടുള്ള സംരഭങ്ങളായിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയും കർ സർക്കാരൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയും അതുപോലെതന്നെ കന്നുകാലി വളർത്തലിന് ഇതിനൊക്കെ ഒരുപാട് ലോൺ ഒക്കെ സർക്കാര് ഇതാക്കിയിട്ടുണ്ട് സർക്കാര് ഒരുപാട് ലോൺ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരെ സഹായിക്കാൻ വേണ്ടി അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒര് തൊഴില് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് കൃഷിയായിക്കോട്ടെ അതുപോലെ തന്നെ പശ് കന്നുകാലി വളർത്തലായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ നടത്താൻ അവരുടെ കയ്യില് കാശൊന്നും ഉണ്ടാവില്ല വലുതായിട്ട് അപ്പം അതിന് അവരെ പിന്താങ്ങി സർക്കാര് ഒരുപാട് ലോണൊക്കെ കൊടുക്കുന്നുണ്ട് അത് കൃഷിക്കാർക്കും അല്ലെങ്കിൽ സം ഇങ്ങൻ ഇങ്ങനുള്ള മനുഷ്യർക്ക് ഭയങ്കര ഒര് പിന്താങ്ങലാണ് അല്ലെങ്കിൽ അവർക്കൊര് ഭയങ്കര സഹായമാണ് ഇതൊക്കെ